ഞാനൊരുപാട് പൂക്കളും വൃക്ഷങ്ങളും എല്ലാം നടുന്നൊരാളാണ് ഇവിടെത്തന്നെ നമ്മള് രാവിലെ എഴുന്നേക്കുമ്പോള്തന്നെ നമുക്കൊരു പുറത്തേക്കിറങ്ങുമ്പോള്തന്നെ നമുക്കൊരു ഉന്മേഷവും ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് കിട്ടും ഓരോ പൂക്കളും വിരിഞ്ഞുനില്ക്കുന്നത് കാണാനും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഓണമാവുമ്പോഴത്തേനും ഒരിടത്തരം വലുപ്പമുള്ള മരങ്ങളിലൊക്കെ ഊഞ്ഞാല് കെട്ടി ആടുന്നതും ഉള്ള പൂക്കളെല്ലാം പറിച്ച് അത്തപ്പൂവിടുന്നതും ഇതെല്ലാമൊരു വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ് വളരെ മനോഹരമായൊരു അനുഭവമാണ് ഇതൊക്കെ വിഷൂ സമയത്താണേലും കണിക്കൊന്ന നിറയേ പൂത്തുനില്ക്കുന്നത് അപ്പോള് ആൾക്കാര് വന്നിട്ട് വിഷൂൻ്റെ സമയത്ത് വന്നത് പറിച്ചോണ്ട് പോവുകയും അത് മരത്തെ നില്ക്കുന്നതു കാണാനും നിലത്ത് വീണ് കിടക്കുന്നത് കാണാനും വളരെ ഭംഗിയാണ് അത് മുറ്റത്തിനുമൊരു നല്ല ഭംഗിയാ നൽകുന്ന കാര്യമാണ് മെയ് മാസത്തിൽ നമുക്ക് ഏറ്റവും വളര്ന്ന് നില്ക്കുന്നവയാണ് മുല്ലച്ചെടികൾ മുല്ലച്ചെടികള് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നൊരു പൂവാണ് നമുക്കത് തലയിൽച്ചൂടാം പൂവിടാം എന്നാല് അതിനെ നമുക്ക് പെർഫ്യൂമുകള് സോപ്പുകള് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാക്കാം അത് കാണാനും വളരേ ഭംഗിയാണ് വെള്ളനിറത്തില് നമുക്കെല്ലാർക്കും അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അത് കാണുമ്പോഴത്തേനും ഒരു ഉന്മേഷവും ഉണർവും കിട്ടും